ഹലോ റോയല് റസിഡൻസി

തങ്ങൾക്ക് വന്ന തങ്ങൾക്ക് വന്ന തങ്ങൾക്ക് വന്ന ബുദ്ധിമുട്ടിൽ ഞങ്ങൾ ആദ്യമേ തന്നെ മാപ്പ് ചോദിക്കുന്നു നമ്മൾ ഇന്ന് തൊട്ട് രണ്ട് സെക്യൂരിറ്റീസിനെ അവിടെ പുതിയതായിട്ട് നിയമിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് പേരും വയനാട്ടിൽ നിന്നുള്ള രണ്ട് പേരാണ് പുതിയതായിട്ട് നിയമിച്ചിട്ടുള്ള പൊതുവേ അവർക്ക് ഇച്ചിര ആരോഗ്യകൂടുതലായത് കൊണ്ട് ആ രണ്ട് പേരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട ബാക്കി എന്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ അപ്പോൾ തന്നെ വിളിക്കുക നമ്മൾ കഴിഞ്ഞ ദിവസം ആ നിങ്ങൾക്ക് ആ ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടിച്ചതിൽ ഞങ്ങൾ ഖേദം പ്രകടിപ്പിക്കുന്നു ഞങ്ങൾ ഇന്ന് തന്നെ റൂം നമ്പർ ഏതായിരുന്നു ആ റൂം നമ്പറ് ഇന്ന് തന്നെ നമ്മൾ നല്ല ഇലക്ട്രീഷ്യനെ വിടുതായിരിക്കും നമ്മൾ പുതിയതായിട്ട് പുതിയ ഒരു ഇലക്ട്രീഷ്യനെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തന്നെ ഇലക്ട്രീഷ്യൻ വന്നിട്ട് നിങ്ങൾക്ക് അവിടെയുള്ള ആവശ്യ സാധനം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന പൈസയൊന്നും കൊടുക്കണ്ട നമ്മുടെ നമ്മൾ ഇപ്പോൾ പുതിയ ഇലക്ട്രീഷ്യൻസിനെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ മതി അവർ തന്നെ അത് വന്ന് ഫിക്സ് ചെയ്തു തന്നോളും നമ്മൾ ഇന്ന് സോറി നമുക്ക് അതെ പ്രശ്നമെന്തെന്ന് വച്ചാൽ നമ്മൾ ഫിൽട്ടർ അടിച്ചു ഫിൽട്ടറ് കേടായിപ്പോയ കാര്യം നമ്മൾ അറിഞ്ഞില്ലായിരുന്നു ഫിൽട്ടറ് നമ്മൾ പുതിയതായിട്ട് നന്നാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ ടാങ്ക് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം താങ്കൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താങ്കൾ പോയി നോക്കാം അപ്പം ടാങ്ക് നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പം തെളിഞ്ഞ വെള്ളമാണ് വന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കൺസേൺ നേരത്തെ കിട്ടിയായിരുന്നു നമ്മൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽൽ തന്നെ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കലും ആ ഒരു ക്രമീകരണം നടത്താനും സാധിച്ചത് അ സെക്യൂരിറ്റിനെ നമ്മൾ മാറ്റി നമ്മൾ ആദ്യം പറഞ്ഞല്ലോ നമ്മൾ സെക്യൂരിറ്റിനെ മാറ്റി എന്നും പുതിയ രണ്ട് പേരെ നമ്മൾ സെക്യൂരിറ്റീസ് ആയിട്ട് നിയമിച്ചിട്ടുണ്ട് അവർ ഇന്ന് തൊട്ട് ജോയിൻ ചെയ്തിരിക്കും പിന്നെ രാത്രി നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു പ്രശ്നമൊന്നുമുണ്ടാവില്ല ആ ആ റൂമിൽ അന്ന് പ്രശ്നമുണ്ടാക്കിയവരെ നമ്മൾ ഇന്ന് റൂമിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട് അവർ ഇനി ഉണ്ടാവില്ല നമ്മൾ ഇനി ബാച്ചിലേഴ്സിനെ നമ്മൾ എടുക്കുന്നില്ല ഇതോടെ ബാച്ചിലേഴ്സിനെ നിർത്തി ഇനി ഫാമിലി മെമ്പേഴ്സായിട്ടുള്ളവരെ മാത്രമേ നമ്മൾ ഇനി എടുക്കുന്നുള്ളു നമ്മൾ ഫിലിട്ടേഴ്സ് ഇനി ഓരോ വീട്ടിലേക്കും ഫിലിട്ടേഴ്സ് ഓരോ വീട്ടിലേക്കും നമ്മൾ ഇനി പ്രോവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾ എക്സ്ട്രാ ഒരു ആയിരം രൂപ തരേണ്ടി വരും കാരണം ഇത് നമ്മുടെ ഇതിൽ വരുന്നതല്ല ഫിൽറ്റേഴ്സൊന്നും നമ്മൾ വെള്ളം പ്രോവൈഡ് ചെയ്യുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ് അപ്പം സോ നമ്മൾ ഫിൽറ്റേഴ്സ്സ് നമ്മൾ പ്രോവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ആയിരം രൂപയേ ആയിരം രൂപ തരാൻ തന്നാൽ മാത്രം മതി വേറെ ആവശ്യമൊന്നുമില്ല ഓക്കെ നിങ്ങള് കൺസേൺ ഞങ്ങളെന്തായാലും സ്വീകരിച്ചിട്ട്ണ്ട് ഞങ്ങള് ചർച്ചേയ്തിട്ട്ണ്ടാര്ന്നു കമ്മറ്റീല് ആ ഓക്കെ അപ്പം നമ്മള് പുതിയ ഫിൽട്ടേഴ്സം ടാങ്കും അങ്ങനൊരു സെക്യൂരിറ്റി പിന്നെ പുത്യായിട്ട് കേമറാസക്കെ നമ്മള് ഫിറ്റെയ്ന്ന്ണ്ട് അപ്പം ഇനി അങ്ങ് തൊട്ട് നിങ്ങൾ ഇപ്പം ഉണ്ടായ നിങ്ങളുടെ പ്രശ്നങ്ങൽ ഇനി ഉണ്ടാവില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും ഇനി എന്തെങ്കിലും കൺസേൺസ്സ് പ്രശ്നം ഓക്കെ താങ്ക് യു ഫോർ കോളിങ് റോയൽ റെസിഡൻസി ബൈ ഓക്കെ